നല്ല ചിത്രങ്ങൾ ഇത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ ഒരുപാട് പ്രകൃതിരമണീയമായ ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു ജില്ലയാണ് ഇടുക്കി ഇടുക്കിയിൽ ക്യാമറയിലൊപ്പിയെടുക്കാനും ഒരുപാട് പ്രകൃതി രമണീയത ഒരുക്കിയിരിക്കുന്ന പ്രകൃതി കനിഞ്ഞ് നൽകിയിരിക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി മൂന്നാറ് വട്ടവട തുടങ്ങി ഇടുക്കി ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും തന്നെ പ്രകൃതി രമണീയമായ ഒരു ക്യാൻവാസാണ് ഒരുപാട് വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും ഇടുക്കി സന്ദർശിക്കാൻ എത്തുന്നുണ്ട് ഇടുക്കിയിലെ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് മൂന്നാറ് വട്ടവട ഇടുക്കി ഡാമ് ഇടുക്കി ഡാം കാല്വരി മൗണ്ട് മറയൂർ തുടങ്ങി ഇടുക്കിയിലെ എല്ലാ സ്ഥലങ്ങളും തന്നെ വളരെ ഫോട്ടോ ജനിക്കായിട്ടുള്ള പ്രദേശങ്ങളാണ് ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങ്കളുൾപ്പെടെയുള്ള സംഭവങ്ങൾ നിലവിൽ ഇടുക്കിയിൽ ഉണ്ട് ഒരുപാട് നല്ല നല്ല ഒരുപാട് പ്രദേശങ്ങൾ ഷൂട്ടിങ്ങിനായിട്ട് ഒരു ഭാഗ്യ ലൊക്കേഷനും കൂടെയാണ് ഇടുക്കി നിരവധി സിനിമകളിൽ ഇടുക്കിയുടെ മനോഹാരിത നമ്മൾ കണ്ടിട്ടുണ്ട് തൊടുപുഴ കാഞ്ഞാർ കൊടയത്തൂർ മേഖലകൾ ഒരുപാട് നല്ല ചിത്രങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തൊടുപുഴ എറണാകുളത്തുനിന്നും ഇടുക്കി റൂട്ടില് ആണ് ഈ കാഞ്ഞാർ തൊടുപുഴ കാഞ്ഞാർ കൊടയത്തൂര് പ്രദേശം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ മലങ്കര ഡാമാണ് ആ അതിൻ്റെ പ്രത്യേകത നിരവധി ഒരു പത്തോ പതിനഞ്ചോളം സിനിമകൾ ആ പ്രദേശങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നില നല്ല നല്ല ഒരുപാട് പ്രകൃതി ഒരുക്കിയ ഒരു മനോഹാരിത നിറഞ്ഞ ഒരു സ്ഥലങ്ങൾ ഒരുപാട് ഇടുക്കിയിലുണ്ട് മൂന്നാർ തേയിലത്തോട്ടത്തിൽ തേയിലത്തോട്ടങ്ങൾ ഏറെ ലോകപ്രശസ്തമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ശരിക്കും നിരവധി നിരവധി ഫോട്ടോജനി ഫോട്ടോ എടുക്കുന്നതിനും വെഡ്ഡിംഗ് ഷൂട്ടുകൾക്കൊക്കെ ആയിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശമാണ് മൂന്നാറ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര മേഖലകളിൽ ഒന്നാണ് ഇടുക്കി മൂന്നാർ ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലെ തന്നെ മറ്റൊരു സ്ഥലമാണ് വാഗമൺ വാഗമണ്ണ് എത്ര ചിത്രങ്ങളെടുത്താലും മതി വരാത്ത ഒരു പ്രദേശ പ്രദേശങ്ങളാണ് വാഗമണ്ണ് മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് ക്യാൻവാസിൽ നമുക്കൊപ്പിയെടുക്കാം ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നതിനും മറ്റുമായിട്ട് ഇടുക്കിയിലേക്ക് വരുന്നുണ്ട് മൂന്നാറ് വട്ടവട കാന്തല്ലൂർ വാഗമൺ കാൽവരി മൗണ്ട് ഇടുക്കി ഡാമ് മൂലമറ്റം തുടങ്ങി അനേകം അനേകം പ്രദേശങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സ്ഥലങ്ങളാണ്